ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഒരു പൂന്തോട്ടമുണ്ടാക്കുവാൻ ചെത്തി ഒരുക്കി സഹായിച്ചു പൂന്തോട്ടമുണ്ടാക്കാൻ പത്ത് മണിച്ചെടി പത്തുമണി നട്ടു ഒരു ചട്ടിയിൽ പത്തുമണി ചെടി നട്ട് അതിന് വെള്ളമൊഴിച്ച് എല്ലാ ദിവസവും വെള്ളമൊഴിക്കും അതിന് വളമിടും ചാണകം കലക്കി ഒഴിക്കും അങ്ങനെ വലുതായി എല്ലാ ദിവസങ്ങളിലും വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പത്ത് മണിയാകുമ്പോൾ ആ പൂവ് വിരിയും റോസ് കളറുള്ള പൂവാണ് വിരിഞ്ഞത് പിന്നെ ഡാലിയ ഡാലിയയുടെ കായ കൊണ്ട് നട്ടു അതിന് വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് എന്നും ശുശ്രൂഷിച്ച് നോക്കി വലുതാക്കി അത് പൂവ് വിരിഞ്ഞു ഡാലിയ പിന്നെ റോസച്ചെടി റോസ റോസെയുടെ കമ്പ് കൊണ്ടു വന്നു മണ്ണിൽ കുഴിച്ചിടും അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് പയ്യെ മുളച്ച് പൊന്തി വന്ന് കുറേ ദിവസം കൊണ്ട് അത് വലുതായി അതിന് വളമിടും ചാണകം ഇടും അല്ലാത്ത വളമൊക്കെ ഇട്ട് അതിനെ വലുതാക്കി നല്ല മുഴുത്ത റോസ് പൂവുണ്ടാവും പിന്ന മുല്ല മുല്ലയുടെ വള്ളി കൊണ്ട് ചാക്കിന് അകത്ത് മണ്ണ് നിറച്ച് അതിൽ നട്ട് അത് അതിനകത്ത് നിന്ന് പടർന്ന് അതിന് വെള്ളമൊഴിക്കുകയും വളം ഇടുമൊക്കെ ചെയ്ത് അത് വലുതായി കഴിയുമ്പം അത് ചട്ടി വച്ചിരുന്ന ചാക്കിന് അകം എല്ലാം പടർന്ന് വലുതായി അതിന് അകത്ത് നിറച്ച് മുല്ലപ്പൂവുണ്ടാവും പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ കമ്പ് കൊണ്ടു നടുക നട്ടിട്ട് അതിനും വെള്ളമൊഴിച്ച് ശുശ്രൂഷിച്ച് വലുതാക്കി അതിലും ചുവന്ന ചെമ്പരത്തി പൂവുണ്ടായിരിക്കും തുളസിച്ചെടി തുളസിയുടെ തൈ കൊണ്ട് നട്ട് അതിനും വെള്ളമൊക്കെ ഒഴിച്ച് നന്നാക്കിയെടുത്ത് അതും തുളസിയുടെ പൂവൊക്കെ ഉണ്ടായി വലുതായി നിൽക്കുന്നു ഹൈട്രാഞ്ച് ചെടി അതിൻ്റെ ഒരു കൊമ്പ് കൊണ്ട് നട്ട് പിന്നെ മണ്ണിൽ കൊണ്ട് അതിൻ്റെ കമ്പ് കുഴിച്ചിട്ട് അതിനും വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വളമൊക്കെ ഇട്ട് റെഡിയാക്കി അതിനും പിന്നെ വലുതായി കഴിയുമ്പോൾ നല്ല കൊലയുള്ള നല്ല നീല കളറിലുള്ള പിന്നെ ഹൈട്രാഞ്ചിൻ്റെ പൂവ് വിരിയുന്നു ചെത്തി ചെത്തിയുടെ കമ്പ് കൊണ്ട് നട്ട് ചെത്തിയുടെ കമ്പ് കൊണ്ട് കഷ്ണമാക്കി മുറിച്ച് കൊണ്ട് നട്ട് മൂന്ന് നാല് സൈസ് ചെത്തികൾ ഉണ്ട് അതിൻ്റെ ഓരോ കൊമ്പുകളും കൊണ്ട് മാറ്റി മാറ്റി നട്ട് അതിന് വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് ചാണകമൊക്കെ ഇട്ട് പിന്നെ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് വലുതായി അതിനും നല്ല പൂക്കളുണ്ടായി കടലാസ് റോസാ കടലാസ് റോസെയുടെ പിന്നെ കൊമ്പ് മുള്ളുള്ള കൊമ്പാണ് കൊമ്പ് കൊണ്ടു നട്ടു അത് അതിനും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കണം അങ്ങനെ ഒഴിച്ച് വലുതായി വളവും ചാണകവുമൊക്കെ ഇട്ട് വളർത്തി വലുതായി പടർന്ന് കമ്പ് കമ്പുകളായി വലിയ കമ്പുകളായി പടർന്ന് അതിൽ കൂടെ കടലാസ്സ് പുഷ്പം പൂവ് ഉണ്ടാവുന്നു നാലുമണി പൂവ് നാലുമണി ചെടി കൊണ്ട് നട്ട് അതിനും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് നാല് മണിയാകുമ്പോൾ പൂവ് വിരിയുന്ന ഒരു ചെടി അങ്ങനെ അതും നട്ടു വളർത്തി പൂവ് ഉണ്ടായി സാനിയ അങ്ങനെ ഒരു ചെടി നട്ടു അതിലും പിന്നെ വെള്ളം ഒഴിച്ച് ചാണകമൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ചാണകമെല്ലാം ഇട്ട് വളർത്തി വലുതായി പൂവ് ഉണ്ടായി ശംഖു പുഷ്പം ശംഖു പുഷ്പത്തിൻ്റെ ചെടി കമ്പ് കൊണ്ട് നട്ടു പിന്നെ അതിന് നീല കളർ അതിന് കമ്പ് കൊണ്ട് നട്ടു വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊഴിച്ച് ചാണകമൊക്കെ ഇട്ട് വലുതാക്കി അത് പടർന്ന് വളരുന്ന ശംഖു പുഷ്പച്ചെടി ഉണ്ടായി